വാഴ കുരുമുളക് മുളക് വഴുതനങ്ങ മുതലായ ചെടികൾ വേനൽക്കാലത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിനായിട്ട് നമ്മൾക്ക് വേനൽ കാലങ്ങളിൽ ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള തുള്ളി നനകൾ കൊടുക്കുക എന്നത് ഒരു സംരക്ഷണ മാർഗങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ കുരുമുളക് മറ്റു പച്ചക്കറികൾ അതുപോലെ പച്ചക്കറികളുടെ ചെടികൾ വാഴകൾ ഇതിൻ്റെയെല്ലാം താഴെ നമ്മൾക്ക് കരിയില കൊണ്ട് പുത ഒരുക്കി ജലനഷ്ടം ഒഴിവാക്കാം